ഹലോ അതേ ഇതാരാണ് ആ പറയൂ എന്തായിരുന്നു വിളിച്ചത് തെയ്യങ്ങളെക്കുറിച്ചോ എന്തായിരുന്നു കാണാൻ വരാനോ അങ്ങനെ എന്തെങ്കിലും ആണോ അതെയോ നിങ്ങൾ കേരളത്തിലെവിടെയാണ് അത് നാട്ടിൽ എവിടെയാണ് നിങ്ങൾ കണ്ണൂരാണ് ആ അപ്പോൾ നിങ്ങൾ ഏത് സമയത്ത് കാണാൻ വരാനാണ് ഉദ്ദേശിക്കുന്നത് ആ ആ ആ ആ

അപ്പോൾ ആ ഇത് നിങ്ങൾ ചോദിച്ചോളൂ എന്താണ് അപ്പോൾ ഇവിടെയെന്നു വച്ചാൽ തെയ്യങ്ങൾ ഒരു നാന്നൂറോളം തരം തെയ്യങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോൾ അയിൽ ഒരു നൂറോളം തെയ്യങ്ങളാണ് കൂടുതൽ പ്രശസ്തം ആയിട്ടുള്ളത് ആൾക്കാർക്ക് അറിയുന്നത് ഒരു നൂറോളം തെയ്യങ്ങളെ ഉള്ളൂ അതായത് ഗുളിഗൻ വിഷ്ണുമൂർത്തി മുത്തപ്പൻ വലിയ മുത്തപ്പൻ

ചാമുണ്ഡി ഇത്തരത്തിൽ കുറച്ച് തെയ്യങ്ങളാണ് കുറച്ച് എല്ലാവരും അറിയുന്നത് ഉള്ളത് വേറെ എന്താ അറിയേണ്ടത് നിങ്ങൾക്ക് ആ ഈ സമയത്ത് വന്നാൽ കാണാൻ പറ്റും എന്നു വച്ചാൽ ഇപ്പോൾ തെയ്യത്തിൻ്റെ സമയം ആണല്ലോ മാത്രമല്ല എന്ത് ഒരു കലാരൂപം എന്നുളളതിനേക്കാൾ ഒരു ആചാരമായിട്ട് നടത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ തെയ്യം കാണാൻ പറ്റും വീടുകളിലും കാവുകളിലും അങ്ങനെ അമ്പലങ്ങളിലും എല്ലാം കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ സമയത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നത് ഒരു നഷ്ടമായിട്ട് തോന്നില്ല എന്തായാലും തെയ്യം കണ്ടിട്ട് തന്നെ തിരിച്ചു പോവാൻ പറ്റും അതെയോ ആ ആ ആ ഉണ്ട് ഉണ്ട് അത് കണ്ണൂർ സിറ്റി ആ സ്ഥലത്തൊക്കെ ആണ് നിങ്ങൾക്ക് സൗകര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾ വരേണ്ട സമയം ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്താണ് നിങ്ങൾ വരേണ്ടത് അപ്പോൾ അതാണ് ശരിയായ തെയ്യത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു ഫെബ്രുവരി മാർച്ച് ആ ആ കാലത്താണ് ഓ നിങ്ങൾ നോക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണം വരാൻ ഓക്കേ എന്നാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയാൻ വിളിച്ചോ